കേരളത്തിലെ കാർഷിക വ്യവസായങ്ങളെ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൃഷികൾ തന്നെ കണ്ടീന്യു ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു മാറ്റമോ അതല്ലായെന്നുണ്ടെങ്കിൽ ഒരു വിളക്ക് ശേഷം അടുത്ത പുതിയ ഒരു ഐറ്റമോ ഒന്നും കൊണ്ടുവരാനായിട്ട് ആരും താൽപര്യപ്പെടുകയോ ആരും അതിലേക്ക് കടന്നുവരുകയോ ചെയ്യുന്നില്ല അതുപോലെത്തന്നെ ഇവിടെ കാർഷിക ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുകളും തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ട്രാക്ടറ് കൊയ്ത്തു കൃഷി ചെയ്യാൻ നെൽക്കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നെൽക്കൃഷി ആയിട്ട് ബന്ധപ്പെട്ട കൊയ്ത്തു മെഷീനുകൾ പിന്നെ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുകൾ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മളെപ്പോഴും ഈ സംസ്ഥാനത്തിനു പുറത്തുനിന്ന് ഇവിടെ വന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കാർഷികമേഖലയിൽ ജോലി ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇവിടുത്തെ കാർഷികമേഖകളിൽ പോലും വർക്ക് ചെയ്യാൻ വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികളാണ് കടന്നുവന്നിരിക്കുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെക്കൊണ്ടാണ് ഇന്നിപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പുതിയ പുതിയ ടെക്നോളോജികളും പുതിയ പുതിയ മെഷീനറികളും കടന്നുവന്നുകഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാർഷിക വരൂ കാർഷിക മേഖലയിൽ വമ്പിച്ച വിപ്ലവം തന്നെ നേരിടാൻ ഫേസ് നമുക്ക് നേടാൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും നമ്മൾ ഇവിടുത്ത കാർഷികമേഖല വളരെ മോശമായതിൻ്റെ പേരിൽ ആരും ഇത് ചെയ്യാൻ താല്പര്യപ്പെടാത്തതിൻ്റെ പേരിൽ നമ്മൾ അന്യസംസഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പച്ചക്കറികളും പഴങ്ങളും പൂക്കളടക്കം എല്ലാം അന്യസംസ്ഥാനങ്ങളിൽനിന്ന് കടന്നുവരുകയാണ് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന നല്ല ജലലഭ്യതയും നല്ല കൃഷിസ്ഥലങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ജോലി ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷാമമായിട്ട് നിൽക്കുന്നത് അടുത്ത കാര്യമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പുതിയ ടെക്നോളജിയിലേക്ക് കടന്നുവരാനായിട്ട് ആൾക്കാരുടെ വിമുഖത ആ അതും അങ്ങനെയുള്ള മെഷീനറികളോ കാര്യങ്ങളോ ഇവിടെ കേരളത്തിൽ ലഭ്യമല്ലാത്ത ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ സംഭവങ്ങളെ മൈൻറ്റൈൻ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുടെ കുറവ് ഇതെല്ലാം നമ്മൾ കാർഷികമേഖലകളിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് അടുത്ത കാര്യമെന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടരീതിയിൽ വില കിട്ടാത്തതും ആ കിട്ടുന്ന വിലകളു തന്നെ സമയത്ത് കിട്ടാത്തതും ഒക്കെ ഇവിടെ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥയാണ് കാർഷികമേഖലയിൽനിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥയാണ് കടന്നുവരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ കൃഷി ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയാലുടൻതന്നെ തിരിച്ചവർക്ക് പൈസ കിട്ടുന്ന ആ ഒരു സിസ്റ്റം വരികയാണെങ്കിൽത്തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയും യുവ യുവതലമുറ ഈ കാർഷികവൃത്തിയിലേക്ക് കടന്നുവരികയും ചെയ്യും അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ കടന്നുവരുന്നത് ഈ കീടബാധ അതിൻ്റെ നിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെയൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ പോ ലും പരിഗണിക്കാതെ അതികഠിനമായ രാസ് രാസ വസ്തുക്കള് നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപയോഗിക്കുകയും അത് കഴിക്കുന്ന മനുഷ്യരെല്ലാം രോഗികളായി മാറുകയും ചെയ്യുന്നു ആ കീടനിയന്ത്രണത്തിനുള്ള പുതിയ പുതിയ ഹാനികരമല്ലാത്ത കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കാർഷികമേഖല നമുക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയത്ത് വില കിട്ടണം ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടണം നമുക്ക് സാങ്കേതികവിദ്യയിൽ നമ്മൾ മുന്നോട്ട് പോവണം ഇത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാർഷികമേഖലകളെ മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ട് ഈ യുവജനത ഈ കൃഷിമേഖലകളിലേക്ക് കടന്നുവരും യുവജനത കടന്നുവരാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഈ കാർഷികമേഖല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല യുവജനങ്ങൾ അവരുടെ അവർക്ക് കറക്റ്റായിട്ടായിട്ടവർ കഷ്ടപ്പെടുന്നതിനു തുല്യമായിട്ടുള്ള വേതനം കിട്ടുന്നെന്ന് ഉറപ്പുവരുത്തി അവർക്ക് ഉറപ്പായാൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നുവരികയും നമ്മുടെ കാർഷികത്തിൽ കാർഷികവൃത്തിയിൽ നമ്മൾ സ്വയം പര്യാപ്തരായിത്തീരുകയും ചെയ്യും വീണ്ടും കാലം തെറ്റി പെയ്യുന്ന മഴയും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും വെയിലിൻ്റെ ആധിക്യവും നിമിത്തം കൃഷി നശിച്ചുകഴിയാണെങ്കിൽ അല്ലെങ്കിൽ കൃഷിക്കെന്തെങ്കിലും പ്രശ്ങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സർക്കാരിൻ്റെ സൈഡിൽനിന്നോ മറ്റുള്ളവർ കൂട്ടായി പ്രവർത്തിച്ചോ നമുക്കൊരിക്കലും അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇൻഷുറൻസ് ആ വില നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതിലേക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല രീതിയിൽ നമ്മുടെ കാർഷികമേഖലയെ മുന്നോട്ടുകൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് കാർഷികമേഖയിൽ സ്വയം പര്യാപ്തത നേടാനായും സാധിക്കും